ആ ഓക്കെ മനസ്സിലായി ആ ഓക്കെ പറഞ്ഞോളൂ നമുക്കിപ്പോൾ അക്കൗണ്ട് പുതിയത് തുടങ്ങാൻ ആണെങ്കിൽ പാൻ കാർഡും പിന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയും ആധാർ കാർഡും മതി പിന്നെ അതിൻ്റെ രണ്ട് കോപ്പി കൂടെ ഇവിടെ തരേണ്ടി വരും ആ പിന്നെ ആ നമ്മൾ ബാങ്കിലേക്ക് വരുമ്പം ഇത് രണ്ടും കൊണ്ട് വന്നാൽ മതി പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോപ്പി എത്തിച്ചാൽ മതി നാളെ എടുക്കാം ആ എല്ലാത്തിൻ്റെയും ഒരു രണ്ട് കോപ്പി വീതം വേണം പിന്നെ ഒരു ഫോട്ടോ രണ്ടെണ്ണം വേണം ആ അത്രയാണ് നമുക്ക് ഇപ്പം ആവശ്യം വരുന്നത് ആ നമുക്ക് ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഫോമ് ഫില്ല് ചെയ്യാൻ പിന്നെ അടുത്ത ദിവസം തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ അക്കൗണ്ട് റെഡി ആയിക്കോളും പിന്നെ അക്കൗണ്ടിൽ മിനിമം ബാലൻസൊരു ആയിരത്തഞ്ഞൂറ് രൂപ വേണമെന്നുണ്ട് അതിനിപ്പം എത്ര ആയിരത്തഞ്ഞൂറ് രൂപ വേണ്ടി വരും അല്ല അല്ല നമ്മുടെ അക്കൗണ്ടിൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് മിനിമം ബാലൻസ് ചെയ്യുന്നത് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ആണ് അപ്പം ആയിരത്തഞ്ഞൂറ് രൂപ മിനിമം ബാലൻസ് വേണം ആ എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങക്കെപ്പോൾ ഫണ്ട് ആകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി ആണോ ആ പിന്നെ വേറെന്തൊക്കെയാ നിങ്ങൾ വല്ല ഇൻഷുറൻസോ അങ്ങനെ എന്തേലും നോക്കുന്നുണ്ടോ എ ടി എം കാർഡിന് അപേക്ഷിക്കുകയോ അങ്ങനെ എന്തേലും ഉണ്ടോ ഇല്ല അതിന് ക്യാഷൊന്നും വേണ്ട ഫോമ് ഫില്ല് ചെയ്ത് ഇവിടുന്നുതന്നെ ഫോമ് ഫില്ല് ചെയ്തിട്ട് പോയാൽ മതി അതേയല്ലെ ഓക്കെ അപ്പം നിങ്ങൾ വരുമ്പം അതിനും കൂടെ ഉള്ളത് നമ്മളെ ഇവിടെ സാറിനോട് ആരോടേലും പറഞ്ഞാൽ മതി ആ ഓക്കെ എന്നാൽ നിങ്ങളത് നോക്കീട്ട് എന്താണെന്നു വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി ആയിക്കോട്ടെ ശരി